ഹലോ സാർ എൻ്റെ ആധാർ കാർഡിൻ്റെ അപ്ഡേറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കാൻ ഞാൻ കൊടുത്തിരുന്നു അത് പല പ്രാവശ്യം ആവശ്യപ്പെട്ടു പക്ഷേ അത് ഇതുവരേം കിട്ടീട്ടില്ല ഞാനതിനുള്ള ആവശ്യമായ വിശദാംശങ്ങൾ എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടോ അതെല്ലാം ഞാൻ കൊടുത്ത് കഴിഞ്ഞു അതിന് സഹായകരകരമായിട്ടുള്ളൊരു കാര്യം യു ഐ ഡി എ ഐ ഹെല്പ് ലൈനിനായി ഞാൻ കൊടുത്തിരുന്നു അതിനെ കുറിച്ചിതുവരേം യാതൊരു മറുപടിയും ലഭിച്ചില്ല അതുകൊണ്ട് എത്രയും വേഗം ഈ സ്റ്റാറ്റസൊന്ന് പരിശോധിച്ച് വിശദംശങ്ങൾ ഞാൻ തരികയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് ഹെല്പ് ലൈൻ ലൈനു വേണ്ടിട്ട് എന്തെങ്കിലും കൂടുതലയിട്ട് എൻ്റെ ഭാഗത്തെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഞാനത് അയച്ച് തരാം അതുകൊണ്ട് എത്രയും വേഗം അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് തരണമെന്ന് അപേക്ഷിക്കുന്നു